ആ ഹലോ ഗുഡ് മോര്ണിംഗ് സാറെ ഗുഡ് മോര്ണിംഗ് സാറെ സാറെ എനിക്ക് ഒരു അഡ്മിഷന് അതേ ഞാൻ ഒരു പേരൻ്റാണ് സാർ അത് ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു സാറെ സാറിന്റെ എങ്ങനെയുണ്ട് സാറ് സാറിന്റെ കോളേജൊക്കെ എങ്ങനെയണ്ടെന്ന് അത് സാറെ ഒരു പ്ലസ് വണ്ണിലേക്ക് മതിയായിരുന്നു സാറെ പ്ലസ് വണ്ണിലേക്ക് പ്ലസ് വണ്ണിലേക്ക് മതിയായിരുന്നു സാറെ ആ അതെ അതെ അതെ അതെ പ്ലസ് വണ്ണ് കിട്ടുമോ സാറെ

ആ എന്നാൽ പിന്നെ സാറ് പീജിക്ക് ഒരു അഡ്മിഷന് തന്നാൽ മതി ഉം ഉം അതിൽ ഏതാണ് സാറെ നല്ല കോഴ്സ് ഏതാണെന്ന് അറിയാമോ ഏതാണ് നല്ലത് സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തോ ഇംഗ്ലീഷ് ആണ് ഉം ഇംഗ്ലീഷ് ആണ് ആ അതെ അത് സാറിന് സാറിൻ്റെ അറിവിൽ ഏത് കോഴ്സാണ് നല്ലത് കോഴ്സ് ഒന്ന് പറയുമായിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു സാറെ ഏ ആ ആ ആ അത് എനിക്ക് അത്ര വലിയ അത്ര വലിയ ഗ്രാഹ്യം ഇല്ല അത് കുട്ടിക്ക് അത് ഇപ്പം ഇംഗ്ലീഷ് അറിയാവുന്നതു കൊണ്ട് അത് എടുത്താൽ നല്ലതാണെങ്കില് നമുക്ക് അതെടുക്കാം സാറെ അത് എനിക്ക് അതിന് അഡ്മിഷന് തരാമോ ആ ഉവ്വ സാറെ പൈസ ഒത്തിരി ആകുമോ സാറെ ആ ഉവ്വ് ഉവ്വ് പൈസ ഒത്തിരി ആകുമോ സാറെ ആ ഉവ്വ് ഉവ്വ് ഉവ്വ്

ഉവ്വ് ഉവ്വ് ആ ഉവ്വ് ഉവ്വ് ആ ആ ആ ആ ഉവ്വ് പിന്നെ ആ ഉവ്വ് ഉവ്വ് അപ്പം സാറെ നോക്കിയിട്ട് കോളേജൊക്കെ നല്ല രീതിയിലാണോ തുറന്നോ അതോ പഠന നിലവാരം കുട്ടികളുടെയൊക്കെ ഒരു മറ്റ് രീതി അധ്യാപകരുടെ പഠന രീതിയൊക്കെ നല്ലതാണോ സാറെ

ഉവ്വ് ഉവ്വ് ഉം ഉവ്വ് ഉവ്വ് ഉവ്വ ആ പിന്നെ ആ സാറെ അതിന്റെ അത് പുതിയതായിട്ട് അന്വേഷിക്കുന്ന ഇപ്പം രാഷ്ട്രീയമായിട്ടുള്ള വല്ല ഇടപെടലുകളോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും കോളേജിൽ ഉണ്ടോ

ഒ ഓ അല്ല സാറെ അതെ അതെ അതെ അതെ ആ എന്റെ സാറെ ഇപ്പം കോളേജിലും സ്കൂളിലും പഴയ പെണ്കുട്ടികളെ കാരണം ഏത് രീതി ആ ഉവ്വ് ഉവ്വ് എന്നാ ഓക്കെ സാറെ ഓക്കെ താങ്ക് യു സാര്